വയനാട്ടിലെന്നു പറയുമ്പം മെയിൻ ആയിട്ട് ബസ്സുകൾ കാര്യങ്ങളാണ് അവൈലബിള് വരുന്നത് അതുപോലെ ടാക്സി കാര്യങ്ങൾ ഓട്ടോറിക്ഷ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവൈലബിൾ വരുന്നത് വിമാനത്താവളങ്ങളോ അതുപോലെ റെയിൽവേ സ്റ്റേഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരുന്നില്ല പിന്നെ വരുന്നതെല്ലാം ആൾക്കാർ സ്വന്തമായി ബൈക്ക് കാര്യങ്ങൾ കാറ് ട്രാവലർ അങ്ങനെ ഓരോന്നാണ് യൂസ് ചെയ്യുന്നത് അവരുടെ സ്വന്തം ആവശ്യത്തിനുള്ള വണ്ടികൾ കാര്യങ്ങൾ സ്വന്തമായി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ സാധാരണക്കാരാണെന്നുണ്ടെങ്കിൽ അവർ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഓട്ടോറിക്ഷ കാര്യങ്ങൾ ടാക്സി ബസ് ഇതൊക്കെ ഡിപെൻഡ് ചെയ്തിട്ടാണ് എല്ലാവരും പോകുന്നത് അത് ഓരോ സ്ഥലത്തേക്ക് പോകുന്നതൊക്കെ അനുസരിച്ചു എക്സ്പെൻസീവാണ് കാര്യങ്ങൾ വരുന്നത് ബസ് ആണ് പിന്നെയും കുറച്ചുംകൂടി യാത്രക്കാർക്ക് ഇപ്പം സാധാരണക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു കാര്യം കാരണം വേറൊന്നുമല്ല അത് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യം എന്നുപറയുന്നത് അതാണ് ഓട്ടോറിക്ഷ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് അത്യാവശ്യം എക്സ്പെൻസീവാണ് വരുന്നത് പിന്നെ ടാക്സി കാര്യങ്ങൾ ഒന്നും ആരും തന്നെ അങ്ങനെ യൂസ് ചെയ്യാറില്ല കാരണം നല്ല എക്സ്പെൻസീവ് ആണ് വരുന്നത്